ഹലോ

മിസ്സെ ഞാന് നമ്മുടെ ബി എ സെക്കൻഡ് ബാച്ചിലെ രമ്യയാണെ വിളിക്കുന്നെ മിസ്സെ എൻറ്റേ ഐഡൻ്റി കാർഡ് മിസായി പോയി എനിക്കൊരു പുതിയൊരു ഐഡൻ്റി കാഡ് വേണം മിസ്സെ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ഐഡൻ്റി കാർഡ് മിസ്സായി പോയി അതെ അതെ കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടീസ് കോളേജ് പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിനന്ന് എവിടെയോ ഊരി വെച്ചിട്ടത് അവിടുന്ന് എടുക്കാൻ വിട്ടുപോയി പിന്നെ കണ്ടില്ല മിസ്സായി പോയി ഞങ്ങൾ എല്ലായിടവും നോക്കി സെർച്ചെയ്തു പക്ഷേ കിട്ടിയില്ല മിസ്സെ എനിക്കൊരു ഒരൈഡൻ്റി കാർഡും കൂടൊന്ന് പെർമിഷൻ

സോറി സോറി മിസ്സ് സോറി മിസ്സ് സോറി മിസ്സ് എനിക്ക് ഒരെണ്ണം കൂടെ പ്ലീസ് അല്ലെങ്കി ഞാന് ഐഡന് ഐഡൻ്റി കാർഡ് ഇടാതെ നടന്നാല് കുഴപ്പ നോ പ്രോബ്ലം ഇല്ലെങ്കില് ഒരു പ്രശ്നവുമില്ലാ ഐ ഡി കാഡില്ലാതെ കോളേജില് വന്നാല് പ്രശ്നമില്ലല്ലോ അങ്ങനെ പ്ലീസ്സ് പ്ലീസ്സ് മാം എനിക്കൊരു ഒരു ഐ ഡി കാഡും കൂടെ പ്ലീസ്സ് മാം മാം മാം മാം പ്ലീസ്സ് എനിക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് നമ്മുടെ എക്സാം തുടങ്ങുവല്ലേ അപ്പോള് എനിക്ക് എക്സാമിന് ഐ ഡി കാഡില്ലാതെ പറ്റില്ല അതോണ്ടെനിക്കൊരെണ്ണം കൂടി ഇഷ്യൂ ചെയ്യണം പ്ലീസ്സ് മാം ഞാനതിൻ്റെ എത്രയാ എമൗണ്ടെന്ന് വച്ചാല് കൃത്യമായിട്ട് അതിൻ്റെ ഇരട്ടി എമൗണ്ട് തന്നേക്കാം പാരെൻസ് നാട്ടിലുണ്ട്

ആ വരാൻ പറയാം മ്മ് എസ് എസ് മാം ഞാന് എൻ്റെ അച്ഛനെ കൂട്ടി വരാം അച്ഛൻ അച്ഛനറിയാം എൻ്റെ ഐ ഡി കാർഡ് കളഞ്ഞു പോയത് അച്ഛനറിയാം അച്ഛൻ വരും കൂടെ വരും ഓക്കെ ഓക്കെ ഓക്കെ മാം ഓക്കെ ഞാൻ എൻ്റെ പേരെൻ്റിനെ ആ ഓക്കെ മാം എൻ്റെ പേരെൻ്റിനേം കൊണ്ടുവരാം റീസൺ എഴുതിത്തരാം കളഞ്ഞുപോയത് എങ്ങനെയാന്ന് ഞാനത് കൃത്യമായിട്ട് സൂക്ഷിച്ചുവച്ചിരുന്നതാണ് പക്ഷെ അതെങ്ങനെ മിസ്സായെന്ന് അറിയത്തില്ല എൻ്റെ അങ്ങനെ ഐഡൻ്റിറ്റി കാർഡൊന്നും ഞാൻ കളയുന്നതല്ല എങ്ങനെ മിസായെന്ന് അറിയത്തില്ല അതിൻ്റെ ഇപ്പോള് ഒരു കഴിഞ്ഞ നമ്മുടെ കോളേജ് ഫംഗ്ഷൻ നടന്ന ദിവസമാണ് മിസ്സായത് അത് ഞാന് അവിടെയൊക്കെ നോക്കി പക്ഷേ കണ്ടില്ല നാലു ദിവസമായി കളഞ്ഞുപോയിട്ട് ഫോർ ഡേയ്സ് ഓ ഓക്കേ മാം അച്ഛനെ കൊണ്ടുവരാം നാളെത്തന്നെ വന്നേക്കാം മാം നാളെ കാണുവല്ലോ ഓ ഓക്കെ ഓക്കെ മാം താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് ഓക്കെ അ